നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന നാല് രീതിയിൽ വിഭജിച്ച് വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നോക്കുമ്പോൾ അങ്ങ് തെക്ക് തൊട്ട് വടക്ക് വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉത്തരേന്ത്യ ദക്ഷിണം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഇപ്പോൾ സാംസ്കാരിക പരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ആളുകളായിക്കോട്ടെ കാണാനുള്ള ആരും കാണുന്ന രീതി ആ ഒരു ശാരീരികമായിട്ടുള്ള അവരുടെ കാണാനുള്ള കാഴ്ചപ്പാടിൽ ശാരീരികം ആയിട്ടുള്ള അവരുടെ രൂപം വ്യത്യാസപ്പെട്ടിരിക്കും അവരുടെ ഭാഷ തീർച്ചയായും അങ്ങ് നമ്മുടെ ദക്ഷിണേന്ത്യ വരുന്ന സമയത്ത് ആളുകളുടെ ഭാഷ ഇപ്പോൾ ഇവിടെ മലയാളം തമിഴ് ഒക്കെ ആണ് വെച്ചാൽ അവിടെ ഹിന്ദിയും മറ്റു ഭാഷകൾ ഒക്കെയാണ് ഭക്ഷണങ്ങൾ ആയിക്കോട്ടെ നല്ല വ്യത്യാസം ഉണ്ട് നമ്മൾ പൊതുവേ ദക്ഷിണേന്ത്യയിൽ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് എരിവുള്ള ഒരുപാട് സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ പ്രിയം എല്ലാവർക്കും ഒരുപാട് താത്പര്യം പക്ഷേ അങ്ങോ അങ്ങ് ഉത്തരേന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് അത്ര എന്താ പറയുക നല്ല സ്പയിസസ് അല്ലായിട്ടുള്ള ഒരു മൈൽഡ് ഫ്ലേവറിൽ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് അവർ കൂടുതലും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും താത്പര്യം വസ്ത്രങ്ങളിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ ഉത്സവങ്ങൾക്കും നമ്മൾ ഓരോ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് അവിടെയുള്ള വസ്ത്രങ്ങളും നല്ല വ്യത്യാസമുണ്ട് ഇവിടെ പൊതുവേ എല്ലാവരും ഇപ്പോൾ സ്ത്രീകൾ ആയിക്കോട്ടെ സാരി ചുരിദാറും മറ്റും കുർത്തകൾ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് പുരുഷന്മാർ ആയിക്കോട്ടെ മുണ്ടും ഷർട്ടും ആണ് അവിടേക്ക് അത് പൈജാമകളും അതുപോലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളിലും നല്ല വ്യത്യാസം കാണാൻ സാധിക്കും കാലാവസ്ഥയായിക്കോട്ടെ നമുക്ക് ഇവിടെ ലഭിക്കുന്ന മഴയായിരിക്കില്ല അവിടെ ലഭിക്കുന്ന മഴ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ വേനൽക്കാലം ആണെങ്കിൽ അവിടെ വേനൽക്കാലം ആയിരിക്കില്ല അതിൻ്റെതായ കാലാവസ്ഥയിലും വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായിക്കോട്ടെ നമ്മളുടെ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ കേരളം അല്ല നമ്മുടെ ഒരു ദക്ഷിണേന്ത്യയിലെ പലതരത്തിലുള്ള പാർട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ രീതിയിൽ ഇവിടെയുള്ള പാർട്ടിക്കുള്ള അതേ ഇവിടെ ഏത് പാർട്ടിക്കാണോ അതിൻ്റേതായ സ്വാധീനം അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനം ഉള്ളത് പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങ് ഉത്തരേന്ത്യയിൽ അത്ര ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നോക്കാന്ന് വെച്ചാൽ കൂടുതലും ബി ജെ പിക്കാണ് കൂടുതലും എന്താ പറയുക കൂടുതലും അവിടെ സ്വാധീനം ഉള്ളത് പക്ഷേ ഇങ്ങ് അവിടെ നോക്കുക നമ്മുടെ കേരളത്തിലും മറ്റ് തമിഴ്നാട്ടിലും ഒക്കെ നോക്കാന്ന് വെച്ചാൽ എൽ ഡി എഫ് പാർട്ടിക്കാണ് കൂടുതലും സ്വാധീനം ഉള്ളത് പിന്നെ സാക്ഷരത ആയിക്കോട്ടെ തീർച്ചയായും നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ സാക്ഷരത ഒരുപാട് കൂടുതലാണ് ഉത്തരേന്ത്യയെ നോക്കുകയാണെ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് അവർ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം നൽകാത്ത ഒരു സംസ്ഥാനങ്ങളാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭൂഘടനയിൽ ആയിക്കോട്ടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ മലനാട് ഇടനാട് പണ്ട് നമ്മുടെ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക ഹിമാലയവുമായിട്ട് അടുത്തിരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതിൻ്റേതായ ഭൂഘടനയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവസരങ്ങൾ ആയിക്കോട്ടെ ഇപ്പോൾ എന്താ പറയുക നമ്മളുടെ വിദ്യാഭ്യാസമായിട്ടുള്ള അവസരങ്ങൾ ഒക്കെ ആകട്ടെ അവിടെ രണ്ട് രീതിയിലാണ് വ്യത്യാസമുണ്ട് നമ്മുടെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഇവിടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലിംഗസ് ലിംഗ ഭേദമന്യേ ഇപ്പോൾ സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾക്കായിക്കോട്ടെ ആൺകുട്ടികൾക്കായിക്കോട്ടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ കൂടുതൽ മുൻഗണന നൽകുന്ന സംസ്ഥാനങ്ങളാണ് അപ്പോൾ അതിൻ്റേതായ അവസരങ്ങളിലും വ്യത്യാസം വരാറുണ്ട് അങ്ങനെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്